നമ്മുടെ നേരിട്ട് തീയിൽ പാചകം ചെയ്യുകയാണെങ്കിൽ നല്ല രുചി ആയിരിക്കും എന്തുസാധനം ആയാലും നമ്മൾ അടുപ്പത്ത് വെച്ച് പാചകം ചെയ്യുകയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ വെന്ത് വരുമ്പം അതിന് പ്രത്യേകം ഒരു ടേസ്റ്റ് ആയിരിക്കും ഉദാഹരണത്തിന് ഒരു ബീഫ് തന്നെ നോക്കുകാണെങ്കിൽ നമ്മളത് അടുപ്പത്ത് വെച്ച് എല്ലാ ചേരുവകളും ചേർത്ത് അത് ചെറിയ തീയിൽ പതുക്കെ ഇരുന്ന് വെന്ത് വരുകയാണെങ്കിൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് അതേപോലെ മീൻ ആയാലും അങ്ങനെ തന്നെ ചോറായാലും അങ്ങനെ തന്നെ ആ സ്ഥാനത്ത് ഗ്യാസിലാണെങ്കിലും ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് വളരെ മാറ്റമുണ്ട് നമ്മൾ ഗാസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പെട്ടെന്ന് അതിനെ വിസിലടിച്ച് അത് ഗ്യാസ് വന്ന് അത് ചോറായാലും രണ്ട് വിസിലടിക്കുമ്പോൾ ചോർ ഓക്കെയാവും പെട്ടെന്ന് വേവുന്നുണ്ട് പക്ഷെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനേക്കാൾ അത്രയും ഒരു രുചി വരില്ല ഗ്യാസിൽ ഉപയോഗിക്കുന്ന ഭക്ഷണസാധനങ്ങൾ അത് ഏത് സാധനമായാലും അങ്ങനെ തന്നെയാണ് നമ്മൾ അടുപ്പത്ത് തീയിൽ വെച്ച് വേവിച്ച് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റോം നല്ലത് അത്പോലെ ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ തന്നെ കറണ്ട് ആയാലും നമുക്ക് ഒരുപാട് ആവുന്നുണ്ട് ആ സ്ഥാനത്ത് വിറക് ആണെങ്കിൽ നമുക്കത്ര ബുദ്ധിമുട്ട് വരില്ല പണ്ട്കാലത്ത് ഇഷ്ടംപോലെ നമുക്ക് പറമ്പിലായാലും മരങ്ങളൊക്കെയുണ്ടായിരുന്നു വിറകായലും ഇഷ്ടംപോലെ ശേഖരിച്ച് വെയ്ക്കും ഇന്നത്തെ തലമുറയ്ക്ക് ആണെങ്കിൽ അത് വിറക് കത്തിക്കാനും അവർക്ക് ബുദ്ധിമുട്ടാണ് അവർക്കെല്ലാം എളുപ്പമുള്ള പരിപാടിയാണ് അവർ ഇന്നത്തെ തലമുറയിലെ മക്കൾ നോക്കുന്നത് അവർ ഇൻഡക്ഷൻ കുക്കറും ഗ്യാസും ഒക്കെ ഉപയോഗിച്ചാണ് ഭക്ഷണം ഒക്കെ പെട്ടെന്ന് പാകം ചെയ്യുന്നത് പിന്നൊരു കാര്യം പറയുകാണെങ്കിൽ അവർക്കെപ്പഴും ജോലിക്ക് പോകേണ്ടതാണ് ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പാകം ചെയ്യാൻ നോക്കുകയെ ഉള്ളു അടുപ്പത്ത് തീ കത്തിച്ച് ഒക്കെ വരുമ്പോൾ സമയം പോവും അതുകൊണ്ട് അവർ എളുപ്പമുള്ള വഴി നോക്കി തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ പല മാറ്റങ്ങളുമുണ്ട്